നമ്മൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടകൾ സുരക്ഷിതമായി വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ട കടമയുണ്ട് നമുക്ക് പല വിധ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ നമുക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്ക് മാലിന്യങ്ങൾ ഒരിടത്ത് കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കാം പ്ലാസ്റ്റിക്ക് മാലിന്യങ്ങൾ തന്നെ കത്തിക്കാതിരിക്കുവാണേൽ നമ്മുടെ സമൂഹം നമ്മുടെ നാട് തന്നെ പകുതി ശുദ്ധിയാവും പിന്നെ അടുത്തുള്ള വീട്ടിലേക്ക് വേസ്റ്റ് വസ്തുക്കൾ വലിച്ചെറിയാതിരിക്കുക നമ്മുടെ പറമ്പിൽ നാട്ടിലും വൃത്തിയായി ഉള്ള മരങ്ങളും എല്ലാം നട്ട് വളർത്തുക മണ്ണിലേക്ക് ചേരുന്നത് മാത്രം മണ്ണിലിടുക അല്ലാത്തവയെ എല്ലാം വലിച്ചെറിയാതെ എവിടെയെങ്കിലും സൂക്ഷിച്ചു കൂട്ടിവയ്ക്കുക നമ്മൾ ഒരിക്കലും നമ്മുടെ അമ്മയായ ഭൂമിയെ ഉപദ്രവിക്കരുത് നാം നമ്മുടെ നാടിനെ സൂക്ഷിക്കണം ഒഴുകി പോകാതെ ചീഞ്ഞ്കിടക്കുന്ന വെള്ളത്തെ അത് അതിൻ്റെതായ രീതിയിൽ വൃത്തിയാക്കി വെള്ളത്തെ മാലിന്യം കൂടാതെ ഒഴുക്കി വിടാൻ നാം അനുവദിക്കണം ഇന്നത്തെ കാലഘട്ടത്ത് നാം ഏറ്റവും കൂടുതൽ ഒ കണ്ട് വരുന്ന ഒന്നാണ് മാലിന്യങ്ങൾ വെള്ളത്തിലേക്ക് തള്ളുക അതെല്ലാം നിർത്തി നമ്മൾ നമ്മുടെ നാടിനെ ഏറ്റവും വൃത്തിയായി തന്നെ നോക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു ഓരോ ഓരോർത്തർക്കും നമ്മുടെ നാടും സമൂഹവും വൃത്തിയായി സൂക്ഷിക്കേണ്ട കടമയുണ്ട് നാം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് നമ്മുടെ നാടിനെ സുരക്ഷ്യമായി സംരക്ഷിക്കാം ഇന്ന് കാണുന്ന ഈ നാടല്ലായിരുന്നു നമുക്ക് പണ്ടുണ്ടായിരുന്നത് എവിടെ നോക്കിയാലും പച്ചപ്പും മാത്രമുണ്ടായിരുന്ന നാടായിരുന്നു നമ്മുടേത് ഇന്ന് നോക്കിയാൽ മലിന്യങ്ങൾ കൊണ്ട് മാത്രം കുന്നുകൂടി കിടക്കുന്ന ഒന്നാണ് നമ്മുടെ സമൂഹം അതിനെ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കണം വീടിന് ചുറ്റും നല്ല മരങ്ങൾ സ് നട്ടുപിടിപ്പിച്ചും നല്ലത് പോലെ വ് വീ പറമ്പ് സൂക്ഷിച്ചും അങ്ങനെക്കെ നാം ഓരോ കാര്യം ചെയ്ത് വേണം നം നമ്മുടെ വീടിനുള്ള പരിസരങ്ങൾ എല്ലാം ശുദ്ധീകരിക്കാൻ